പ്രാദേശിക ബിസിനസുകളുടെ വളർച്ചയെ ടൂറിസം ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് ടൂറിസം ആണ് ഇപ്പോൾ ഓരോ രാജ്യങ്ങൾ വെച്ച് നോക്കുകാണെങ്കിൽ ആണെങ്കിൽ തന്നെ ടൂറിസം ആണ് ആ രാജ്യത്ത് തന്നെ കൂടുതലായിട്ട് സാമ്പത്തിക പരമായിട്ടും ധനപരമായിട്ടൊക്കെ രാജ്യത്തെ തന്നെ മുന്നോട്ടു നയിക്കുന്നത് വളർത്തുന്നതും ടൂറിസമാണ് ഇപ്പം തന്നെ എൻ്റെ കൊച്ച് കേരളം തന്നെ എടുത്താലും ഞാനിപ്പം കോട്ടയത്താണ് കോട്ടയത്ത് തന്നെ കുമരകം സൈഡിലോട്ടു വരാണെങ്കിൽ ഈ ടൂറിസം വന്നതോടുകൂടിയാണ് ആ പ്രദേശം മുന്നിൽ മുൻപന്തിയിൽ എത്തുന്നത് കാരണം ആ പ്രദേശവാസികൾക്ക് ജോലി സാധ്യതകൾ ഏറുകയാണ് അതുപോലെ തന്നെ ഒരു കട കടകളായാലും കൂൾ ഡ്രിങ്ക്സ് കടകൾ ഒരു സാധാരണക്കാരന് പോലും ആ ടൂറിസം അവിടെ വന്നതുകൊണ്ട് അവർ ക്ക് പല ബിസിനസുളും ആ പ്രദേശത്തുള്ളവർക്ക് പല ബിസിനസുകളും തുടങ്ങാം വേണമെങ്കിൽ ഒരു ചായക്കട തുടങ്ങാം അ അതല്ലെങ്കിൽ ആ പ്രദേശം നന്നാക്കി എടുക്കാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആയിരിക്കും അത് പലതരം കടകൾ വരുന്നു പലർക്കും ജോലി സാധ്യതകൾ വരുന്നു അതുപോലെ തന്നെ ഹോട്ടലുകൾ വരുന്നു അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനായിട്ട് ഫ്ലാറ്റുകൾ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഫ്ലാറ്റുകൾ അങ്ങനെ പലർക്കും പല ജോ ബിസിനസ് നടത്താൻ പറ്റിയ ഇതാണ് ടൂറിസം വളർന്നാൽ അങ്ങനെ ജോലി ജോലി സാധ്യതകൾ എറെ ഏറുകയാണ് അപ്പോൾ സാധാരണക്കാരന് പോലും ജോലിയില്ലാത്തവർക്ക് ജോലിയും സാധാരണക്കാരന് പോലും ജോം പൈസ ഉണ്ടാക്കാനുള്ള ഒരു മേഖലയാണ് ടൂറിസം ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൂറിസം വളർന്നാൽ രാജ്യമല്ല രാഷ്ട്രവും തന്നെ രക്ഷപ്പെടും കാരണം